ആ അതെ അതെ അതെ അതെ എവിടെ ആരായിരുന്നു ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഗസ്റ്റാണോ സംസാരിക്കുന്നത് ഓക്കെ ഓക്കെ ഓക്കെ അഞ്ച് പേര് അപ്പം നമുക്കൊരു പതിനഞ്ച് പേരാണെങ്കില് നമുക്കൊരു പതിനേഴ് സീറ്റിൻ്റെ ട്രാവലര് ബുക്ക് ചെയ്യാം അത് നോക്കാമല്ലെ നമുക്ക് നമുക്ക് നമ്മുടെ നമുക്ക് നിലവിൽ നമ്മുടെ പാക്കേജില് വരുന്ന വെഹിക്കിൾസെന്ന് പറയുമ്പോള് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് സീറ്റുള്ള വണ്ടികളാണ് വരുന്നത് അതല്ലാതെ പിന്നെ നമുക്ക് ഇന്നോവ വരുമ്പോള് നയൻ സീറ്റര് അല്ലെങ്കില് എർറ്റിഗോയുടെ സെവൻ സീറ്റര് അങ്ങനെയാണ് പിന്നെ ആ ഒരു ലെവലിലാണ് നമ്മുടെ പാക്കേജിൻ്റെ വെഹിക്കിൾസുള്ളത് നമുക്ക് അതെ അതെ അതു നമ്മളത് പറഞ്ഞല്ലോ അതിലിപ്പോള് റേറ്റിൻ്റെ കൺസെഷൻ കാണും അതിപ്പം നിങ്ങള് പറയുന്നതുപോലെയിരിക്കും ഇപ്പോള് ഏ സിയുടെ ആണെങ്കില് ഏ സി നമുക്ക് ഇത് ഏകദേശം ഏകദേശം ഓക്കെ നമുക്ക് ഏകദേശം എത്ര ഡെയ്സുള്ള പാക്കേജാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങള് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇത് നമുക്ക് പാക്കേജായിട്ട് തന്നെയുണ്ട് അല്ലെങ്കില് ട്രാവല് എക്സ്പെൻസ് മാത്രമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഫുൾ പാക്കേജ് ഞങ്ങൾക്ക് തരികയാണോ അല്ലെങ്കില് ട്രാവല് മാത്രമാണോ തരുന്നത് നിങ്ങളുടെ പ്രോപ്പർ ഈ സാറിൻ്റെ പ്രോപ്പർ പ്ലേയിസ് എവിടെയാണ് ഓക്കെ ഓക്കെ ഓക്കെ ഇതെങ്ങനെ ഫാമിലി ആണോ ഇനി ബാച്ചിലർസ് എങ്ങനെ ഫാമിലി ആണോ അല്ലെങ്കില് ഫാമിലിയാണ് ഫുൾ ഫാമിലി പിള്ളേരെല്ലാമുള്ള ഫാമിലിയാണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ സർ ഓക്കെ അപ്പോള് നമുക്ക് നമുക്ക് ടെൻ ഡെയ്സിൻ്റെ പാക്കേജ് ട്രാവൽ എക്സ്പെൻസ് കാര്യങ്ങള് ഫുഡ് ഐ മീൻ എല്ലാം എല്ലാം ആ ഒരു നിങ്ങൾ ഒന്നും നിങ്ങളൊന്നും അറിയേണ്ട ഒരു പാക്കേജ് ഇത്ര അമൌണ്ട് തരികയാണെങ്കില് നമ്മളത് ഫൂഡ് കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നര് നിങ്ങളുടെ ഇപ്പോള് അവിടെ ഒരു ഇവെൻറ്റോ അല്ലെങ്കില് എന്തെങ്കിലും ഫെസ്റ്റൊ ഉണ്ടെങ്കിൽ അതിനുള്ള എൻട്രി പാസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പാക്കേജിനകത്ത് അങ്ങനെയൊരു ഗുണമുണ്ട് ഓക്കെ നിങ്ങള് പ്രിഫര് ചെയ്യുന്നത് നിങ്ങൾ പ്രിഫര് ചെയ്യുന്ന ഫുഡ് കിട്ടും ഓക്കെ ഓക്കെ നിങ്ങള് ഓക്കെ ഒക്കെ അത് കുഴപ്പമില്ല സാറെ നിങ്ങള് പറയുന്ന ഫുഡും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാനൊരു ഒരു ഫുഡിൻ്റെ മെനു അയക്കാം നിങ്ങളതിനനുസരിച്ചുള്ള ഫുഡ് സെലക്ട് ചെയ്തുതന്നാല് മതി നമുക്ക് ടെൻ ഡേയ്സ് ടെൻ നിങ്ങൾക്ക് ഓൾ കേരളയാണെങ്കിൽ നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ഓഫീസിൽ വേറെയൊരു സാറാണ് ആണോ അപ്പോള് നമ്മൾ ഞാൻ ഇപ്പം ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നുവെന്ന് മാത്രമേയുള്ളൂ അപ്പോള് അതിൻ്റെ ടാക്സി ഡ്രൈവറായിട്ട് ഞാൻ തന്നെയായിരിക്കും വരുന്നത് അപ്പോള് ബാക്കിയുള്ള മറ്റ് സ്ഥലങ്ങളും ഡീറ്റെയിൽസുമൊക്കെ ഞാനൊരു കോണ്ടാക്ട് നമ്പര് വാട്സാപ്പിൽ അയച്ചുതരാം അയാളെ വിളിച്ചാല് മതിയായിരിക്കും അപ്പോള് നമുക്ക് ഈ ടെൻ ഡെയ്സിൻ്റെ പാക്കേജ് വരുന്നത് നമുക്ക് ഒരു നയൻറ്റി തൗസൻഡാണ് ടെൻ ഡെയ്സ് ഫുഡ് കാര്യങ്ങളുമെല്ലാംകൂടി കൂട്ടി വരുന്നത് ട്രാവല് എക്സ്പെൻസ് എല്ലാംകൂടെ കൂട്ടി വരുന്നത് എല്ലാമുണ്ട് എല്ലാമുണ്ട് ഈ പാക്കേജിനകത്ത് ഫുൾ കവറാണ് നയൻറ്റി തൗസൻഡ് നമുക്ക് ഈ ഫുൾ പാക്കേജ് ടെൻ ഡേയ്സിൽ ഫുൾ കവര് ചെയ്തുതരാൻ പറ്റും അല്ല അപ്പോള് സർ നമുക്ക് ഇതിനകത്തപ്പം ത്രീ നമുക്ക് പെർ ഡെയില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ച് ടീ കോഫീ സ്നാക്സ് ദെൻ ഡിന്നർ ദെൻ അക്കോമഡേഷൻ ഇങ്ങനെയൊരു റൊട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്ലസ് നമുക്ക് ആൾ കേരളയായതുംകൊണ്ട് ഇത്ര കിലോമീറ്ററും പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള റെയ്റ്റും കാര്യങ്ങളും കുറച്ചിട്ടാണ് സാറിന് നമ്മളീ പാക്കേജ് നയൻറ്റി തൗസൻഡ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോള് നമുക്ക് മാക്സിമം കുറയ്ക്കാനെന്ന് പറയുന്നത് കൂടി പോയാല് സാറേ നമുക്കിപ്പം നമുക്ക് മാക്സിമം ഒരു എയ്റ്റി ഫൈവ് തൗസൻഡിനെങ്കിലും മാക്സിമം സാർ നമുക്ക് ടെൻ ഡെയ്സ് ആ ഓക്കെ അപ്പം നമുക്ക് ടെൻ ഡേയ്സ് ആയതുംകൊണ്ടാണ് പിന്നെ ഇത്ര കിലോമീറ്റർ പിന്നെ പെർ പ്ലസ് എ സി ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്

ആ ഓക്കെ ഓക്കെ നോക്കിയിട്ട് വിളിച്ചോ നോക്കിയിട്ട് വിളിച്ചാല് മതി ഓക്കെ താങ്ക് യൂ ഈ നമ്പറില് ഈ നമ്പറില്നിന്ന് കോണ്ടാക്ട് ഈ നമ്പറില്നിന്ന് കോണ്ടാക്ട് ചെയ്താല് മതി ഓക്കെ ഓക്കെ താങ്ക് യൂ ഓക്കെ ഓക്കെ സർ ഓക്കെ താങ്ക് യൂ